ഞാൻ തെരഞ്ഞെടുക്കാറുള്ളതെന്ന് പറഞ്ഞാൽ പിൻട്രെസ്റ്റ് എന്നുപറയുന്നൊരു അപ്ലിക്കേഷനുണ്ട് നമ്മുടെ ഓൺലൈനിൽ അതുകണ്ടിട്ടും അതുപോലെത്തന്നെ നമ്മുടെ സിനിമാതാരങ്ങൾ സെലിബ്രിറ്റീസായിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ എനിക്ക് ഇൻസ്പയർ ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് നോക്കി ആ ഒരു പാറ്റേണിൽ ഞാനെൻ്റെ തുണികൾ തയ്ച്ച് ഇടാറുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു മേഖലയെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരു കളർ കോമ്പിനേഷനുകളാണെങ്കിലും എനിക്കൊത്തിരി ഒത്തിരി ഇഷ്ടമാണ് ആ ഒരു മേഖല അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ കളർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ ഡിസൈൻ നമ്മൾ സ്വീകരിക്കുമ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഓരോരുത്തരുടെ ബോഡി ശരീരം ഉണ്ടല്ലോ ആ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നല്ല രീതിയിൽ തയ്ച്ച് ഇടണമെന്നുതന്നെയാണ് എൻ്റെയൊരു അഭിപ്രായം അതിന് കൂടുതലും ഞാൻ ഓൺലൈൻ ആപ്ലിക്കേഷനുകളുണ്ട് ഒത്തിരി നല്ല ആപ്ലിക്കേഷനുകളുണ്ട് നമ്മുടെ ഡ്രെസ്സൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെത്തന്നെ ഓരോ സെലിബ്രിറ്റീസൊക്കെ ഇട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്പയറാകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് അതനുസരിച്ച് നോക്കി നമ്മൾ ഡിസൈൻ ചെയ്യാറുണ്ട് ആ ഒരു മേഖലയോട് താല്പര്യം ഉള്ളതുകൊണ്ടുതന്നെ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഫോണിൻറെ അകത്തുകൂടെ ഞാനിങ്ങനെ കൂടുതലും നോക്കുകയും അത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഡ്രസ്സ് പാറ്റേണുകളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ച് ഞാൻ കൂടുതലും ഡ്രെസ്സൊക്കെ നമ്മൾ തന്നത്താനെ മേയ്ക്ക് ചെയ്യാറൊക്കെയുണ്ട് നല്ലയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ അങ്ങനെയൊരു ഉപയോഗം ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ബ്രാന്ഡായിട്ടൊന്നുമില്ല എനിക്ക് സ്വന്തമായിട്ടൊരു തുണി ഡിസൈൻ ചെയ്ത് തന്നത്താനെയൊക്കെ ഇടുന്നതാണ് കൂടുതലും ഇഷ്ടം താല്പര്യം എന്നുംപറഞ്ഞ് നല്ല തുണി നല്ല മെറ്റീരിയൽ നമ്മുടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള തുണികൾ നമ്മൾക്ക് ഇടുന്നതിനോടാണ് കൂടുതലും താല്പര്യം ഞാൻ ചൂട് കാലാവസ്ഥയിൽ ഒത്തിരി ചൂടെടുക്കുന്ന വസ്ത്രങ്ങളും തണുപ്പ് കാലാവസ്ഥയിൽ തീരെ തണുപ്പൊത്തിരി ഏൽക്കുന്ന ദിവസം അങ്ങനെയല്ല നമ്മുടെ ഓരോ ക്ലൈമറ്റിന് അനുസരിച്ചിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വേഷവിധാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അതുപോലെത്തന്നെ കണ്ടാൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നതുമുള്ള ഡ്രെസ്സുകളൊ തുണികൾ ഇടാനാണ് എനിക്ക് താല്പര്യമുള്ളത്